സാർ നമസ്കാരം എന്നോട് ചോദിച്ചിരിക്കുന്നത് റേഡിയോയിൽ വാർത്ത കേൾക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഒരു സാധനമാണ് റേഡിയോ ഈ റേഡിയോയിലെ പ്രാദേശിക വാർത്തകൾ കൗതുക വാർത്തകൾ പ്രഭാത പത്ര വാർത്തകൾ ഇതെല്ലാം ഞാൻ ഡെയ്ലി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കൗതുക വാർത്തകൾ ആഴ്ച്ചയിൽ ഒന്നേ ഉള്ളു പിന്നെ കൂടാതെ ഇപ്പം ഇഷ്ടംപോലെ എഫ് എം ചാനലുകളിറങ്ങിയിട്ടുണ്ട് ഈ എഫ് എം ചാനലുകളിൽ നമുക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള റേഡിയോ മീഡിയ വില്ലേജ് എന്ന ഒരു ചാനലുണ്ട് അതിൽ ഞാൻ പങ്കാളിയായിട്ടുള്ളതാണ് അതിലെ കാക്കദൃഷ്ടിയിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ് അവരുടെ വാർത്തകളെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഫോണിൽക്കൂടി ഇപ്പോൾ അത് കിട്ടുമെന്നുള്ളതുകൊണ്ട് നമുക്കെപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കൂടാതെ റേഡിയോ മാങ്കോ അവരുടെ പരിപാടികൾ അവരുടെ വാർത്തകൾ എല്ലാം ശ്രദ്ധയോടെ കേൾക്കാറുണ്ട് ഇപ്പം നമുക്ക് പത്രം വായിക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ ആണെങ്കിലും ഈ ഫോണിലെല്ലാം റേഡിയോയുടെ ആപ്പുള്ളതുകൊണ്ട് വളരെ ഉപകാരമാണ് നമ്മൾ ആ റേഡിയോ കേൾക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് കൂടുതൽ വാർത്തകളറിയുന്നത് തൊഴിൽപരമായിട്ട് നമുക്ക് പത്രം വായിക്കാൻ ഇപ്പോൾ സൗകര്യമില്ല കാര്യം കൂടുതൽ സമയം നമ്മൾ യാത്രയിലാണ് അല്ലാത്ത സമയത്ത് നമ്മൾ തൊഴിലിടത്തിലാണ് ഈ തൊഴിലിടത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പത്രം വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് റേഡിയോയെ ആശ്രയിച്ചത് റേഡിയോ വീട്ടിലാണെങ്കിലും നമുക്ക് സകല ജോലിയുടെ ഇടയ്ക്കും ഈ റേഡിയോ ഓണാക്കി വച്ചേച്ചാൽ മതി അതിൽ നിന്ന് വാർത്ത കേൾക്കുകയും ചെയ്യാം നമ്മൾക്ക് തുണി തേക്കാം പാത്രം വാഷ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം മറ്റു ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ഇച്ചിരിയുംകൂടി വോളിയം കൂട്ടിവെച്ചു കഴിഞ്ഞാൽ പാചക സമയത്താണെങ്കിലും അടുക്കളയിൽ ഇത് നമുക്ക് കൊണ്ടുപോയി വെച്ച് നമുക്ക് യൂസ് ചെയ്യുമ്പം ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മലയാളത്തിലറിയാൻ പറ്റും നമ്മൾ കൂടുതലും ഞാൻ നാട്ടിൻപുറത്തുകാരനാണ് കുട്ടനാട് ആലപ്പുഴ അതുകൊണ്ട് നമുക്ക് മലയാളമാണ് കൂടുതലും മനസ്സിലാകത്തുള്ളു മലയാള ചാനലുകളായ റേഡിയോ ചാനലുകളാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ റേഡിയോ വാർത്തകൾക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഫോണിലെ ഡെയ്ലി ഹണ്ടാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് ചെറിയ സമയത്തൊക്കെ അത് വായിക്കാറുണ്ട് കൂടുതലും കേൾക്കാനാണിഷ്ടം അതിൽ വാർത്ത വായിക്കുന്നവരെ നമ്മൾക്ക് ഇഷ്ടമാണ് കോഴിക്കോട് നിലയത്തിൽ നിന്നുള്ള വാർത്തകൾ രാവിലെ ആറ് അമ്പതിനുണ്ട് പിന്നെ ഏഴ് മുപ്പത്തഞ്ചിന് പ്രാദേശിക വാർത്തകൾ ആ ഡൽഹി വാർത്തകളും അതിൻ്റെ മലയാളം പതിപ്പ് അങ്ങനെ നമുക്ക് സംസ്ഥാന തലത്തിലുള്ളതും ദേശീയ തലത്തിലുള്ളതുമായ ഒത്തിരി വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാ ചാനലുകളും മാറ്റി മറിക്കാനുള്ള സിസ്റ്റം ഇപ്പോഴത്തെ ഫോണിൽ ആപ്പിലുണ്ട് അത് നമ്മൾ യൂസ് ചെയ്തുവെച്ചാൽമതി അപ്പം നമുക്ക് ഇഷ്ടംപോലെ വാർത്തകൾ കിട്ടും അപ്പം മാറ്റില്ലയെന്നും പറഞ്ഞ് വയനാട്ടിൽ നിന്നൊരു ചാനലുണ്ട് മലയാള മനോരമയുടെ മാങ്കോ ചാനലുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി അരമനയുടെ ഇതുള്ള മാക് ടീ വി ഉണ്ട് പിന്നെ അതിനകത്തുനിന്ന് എല്ലാം നമുക്ക് വാർത്തകൾ കിട്ടുന്നുണ്ട് ഇതിനതെല്ലാം റേഡിയോയിൽ ടച്ചുള്ള എഫ് എം നിലയങ്ങളിപ്പം ഇഷ്ടംപോലെയുണ്ട് ഗ്ലോബൽ ആലപ്പുഴയെന്നുണ്ട് അങ്ങനെ മംഗളത്തിൻ്റെ മംഗളം ചാനലുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ചാനലുകളുള്ളതുകൊണ്ട് വാർത്തകളെല്ലാം അറിയാൻ സാധിക്കും നമുക്ക് കൂടുതലും നമുക്ക് അഭിവൃദ്ധി വരുന്ന വാർത്തകളാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് റേഡിയോയെ ആശ്രയിക്കുന്നത് നമുക്ക് സമയം പോകും നമ്മുടെ പോക്കറ്റിലിട്ടുകൊണ്ട് ആരും കേൾക്കാത്ത രീതിയിൽ ചെറുതായിട്ട് ഇയർഫോൺ വെച്ച് നമുക്ക് സൗകര്യപ്രദമായി വാർത്തയും കേൾക്കാം മറ്റൊരാൾക്ക് ശല്യമേ ഇല്ല അതാണിതിൻ്റെ പ്രതേകത